ഇപ്പോൾ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിലിപ്പോൾ നമ്മളിപ്പോൾ കായിക രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യം ഇൻട്രസ്റ്റ് കാണണമെന്നില്ല പലർക്കും പല തരത്തിലായിരിക്കും അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ കായികപരമായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അതായത് നല്ലവണം നമ്മൾ പരിശീലനം പരിശീലമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിനാണ് ഇപ്പോൾ കായിക തരത്തിലല്ല കലാപരമായിട്ടാണെങ്കിലും നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു കാര്യമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പരിശീലനമാണ് നല്ലവണ്ണം പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നമക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അറ്റത്തു വരെ എത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതായത് ഡെഡിക്കേഷൻ പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമുക്കൊരു പരാജയം ഉണ്ടെങ്കിൽ നമുക്കത് വിജയത്തിലേക്കുള്ളൊരു മുന്നോടിയായിരിക്കും നമ്മളിപ്പോൾ തോറ്റു പോയെന്ന് വച്ചിട്ടൊരിക്കലും പിന്മാറാൻ പാടില്ല നമ്മൾ പിന്നേയും മുന്നോട്ട് മുന്നോട്ട് അതായത് ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ജയിക്കുമെന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് നല്ല രീതിയിൽ നമുക്കെല്ലാം അതായത് എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്